പതിനെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്ത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് എട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്